എൻ്റെ കൈയിൽ ആദ്യമേ ഉണ്ടായിരുന്നത് ഒരു ഓപ്പയുടെ മൊബൈൽ ഫോണായിരുന്നു അതിനുശേഷം കുറേ മാറ്റങ്ങളാണ് ഉണ്ടായത് ആദ്യത്തെ ഫോണ് എന്ന് പറയുമ്പത്തേക്ക് അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ ഫോണിൽ നിറയെ നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം മൊബൈൽ വേൾഡില് നിരവധി ചേഞ്ചസ് ആണുണ്ടാവുന്നത് അതും വളരെ വലിയ ചേഞ്ചസ് ആണുണ്ടാവുന്നത് ആൾക്കാരെ പ്രലോഭിപ്പിക്കാനായിട്ട് കുറേ മോഡലുകളും കുറേ ഫീച്ചേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട് മൊബൈൽ കമ്പനികൾ അപ്പം ഇതിന് കുറേ നല്ല നല്ല വശങ്ങളും ഉണ്ട് ചീത്ത വശങ്ങളും ഉണ്ട് അപ്പം മൊബൈൽ ഫോണിനെപ്പറ്റി പറയാനാണെ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ